ഷെയർ മാർക്കെറ്റിനെക്കുറിച്ച് കൂടുതലൊന്നും വലിയ അറിവൊന്നും എനിക്കില്ല എങ്കിലും ഒരു വാങ്ങുന്നതിനും വിൽക്കുന്നതിനും തമ്മിലുള്ള ഒരു ഇടപാടുകൾ ആയിരിക്കാം ഇതിനെ നിയ നിർണ്ണയിക്കുന്നത് പിന്നെ ഇതിൻ്റെ എന്താ പറയുക ഏറ്റക്കുറച്ചിലിനെക്കുറിച്ചും നിലവിലെ വിപണിയെക്കുറിച്ചൊന്നും അധികം ഈയൊരു ഇതിനെപ്പറ്റി വലിയ അറിവുകളൊന്നും ഇല്ല എങ്കിലും ഓരോ ബിസിനസ് ആണല്ലോ ഈ മെയ്നായിട്ട് പറയുന്നത് അപ്പോൾ നമ്മള് കൂടുതല് എഫേർട്ടൊന്നും എടുക്കാതെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിലൊരു ഷെയറിട്ട് അതിൻ്റെ പ്രൊഫിറ്റും കാര്യങ്ങളുമായിട്ട് കൊണ്ട് പോകുന്ന ഒരു കാര്യമായിരിക്കാം ചിലപ്പോൾ ഈ ഷെയർ മാർക്കെറ്റെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പിന്നെ ഇത് കൂടുതലും എന്താണ് ഇപ്പോൾ ആൾക്കാരിലേക്ക് ഡിജിറ്റൽ ആപ്പ്കൾ വഴിയും അതുപോലെ മറ്റ് എന്താ പറയുക മറ്റ് കാര്യങ്ങൾ വഴിയും ആൾക്കാർക്ക് കൂടുതൽ എന്താ അറിയാനും പ്രവർത്തിക്കാനും അതിലേക്കെത്തിപ്പെടാനുമൊ ക്കെ കഴിയുന്ന ഒരു ഇതാണെന്ന് തോന്നുന്നു പിന്നെ കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമാക്കാനും അവരെ സഹായിക്കുന്നു ഈ ആപ്പുകളെന്ന് എനിക്കൊരു ധാരണ വന്നിട്ടുണ്ട് അത് സത്യമാണോ ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല പിന്നെ അപകട സാധ്യതകൾ ഇത് അപകട സാധ്യതകൾ ഉണ്ടോ എന്ന് ചോദിച്ച് കഴിഞ്ഞാല് കറക്റ്റായിട്ട് ഇതിനെപ്പറ്റി അറിവില്ലാത്തൊരാൾക്ക് എന്നാൽ എന്താണ് കൂടുതൽ ഒരു അറിവില്ലാണ്ട് പെട്ടെന്ന് എടുത്ത് ചാടി ഇതിലോട്ട് വരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ പ്രശ്നങ്ങൾ നേരിടാനും അതുപോലെ ചീറ്റിങ്ങ് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നതായിരിക്കും എന്നെനിക്ക് തോന്നുന്നു ഇതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞ് ഇതിലുള്ള ആൾക്കാരോട് സംസാരിച്ച് അവരുടെ എന്താ പറയുക ഫീഡ് ബാക്കും അവര് നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങളും അവർക്കുണ്ടാകുന്ന പ്രൊഫിറ്റും കാര്യങ്ങളും എല്ലാം പഠിച്ച് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇറങ്ങുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഈ ഷെയർ മാർക്കെറ്റ് മെയ്നായിട്ട് ഞാൻ കേട്ടിട്ടുള്ളത് ഈ എന്താ പറയുക ബിസ്നെസ്സ് ആ ഒരു രീതിയിലേക്കാണ് അപ്പോൾ എപ്പഴും പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം എന്നൊന്നും ഇല്ല ആളുടെ കോൺഫിഡൻസും ആളുടെ ഒരു ഡിമാൻഡും അതൊക്കെ അനുസരിച്ച് നമ്മള് കൊടുക്കുന്ന ആളുടെ കാര്യം മാത്രല്ല അത് മേടിക്കുന്ന ആൾക്കും കുറച്ച് ഡിമാൻസൊക്കെ ഉണ്ടാകുവില്ലെ അപ്പം അതൊക്കെ ഒരു താരതമ്യേ നിയന്ത്രിച്ച് പോകുന്ന ഒരു സംഭവമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു പിന്നെ എന്താ നമ്മുടെ എന്താണ് സമൂഹത്തിൽ ഉള്ള കാര്യങ്ങളൂം മാറ്റങ്ങളും ഇപ്പോൾ എക്കൊണോമിക്കലി ആയിക്കോട്ടെ നമ്മുടെ സറൗണ്ടിങ്ങിൽ വരുന്ന മാറ്റങ്ങളായിക്കോട്ടെ ഇതെല്ലാം സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു ഇതിനെ എഫക്ട് ചെയ്യുമെന്നാണ് എന്റെ ഒരു അറിവ്